ഇന്ന് നമ്മള് കാണുന്ന കബഡി അടക്കമുള്ള പല ലോക പ്രശസ്ത കളികളും ഗ്രാമങ്ങളിൽ നിന്നാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഗ്രാമങ്ങളിൽ നിന്ന് എങ്ങനെ ഇത് രൂപപ്പെട്ടു എന്നു ചോദിച്ചാല് അവിടുത്തെ ആൾക്കാരുടെ അതായത് ഗ്രാമപ്രദേശങ്ങളാണ് ഗ്രാമങ്ങളാണ് രാജ്യത്തിൻ്റെ ആത്മാവെന്നാണ് മഹാന്മാർ പറയുന്നത് എന്തുകൊണ്ടെന്നാല് ഓരോ ഗ്രാമത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന രാജ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അവരുടെ അധ്വാനം കൊണ്ടു മാത്രമാണ് അപ്പോള് ഈ അധ്വാനിക്കുന്ന ഇവര് എങ്ങനെയാണ് എൻ്റർടെയ്ന് ചെയ്യുന്നത് അതായത് ഇവരുടെ ഈ അധ്വാനം ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയെന്നു ചോദിച്ചാല് അത് കളികളുടെയാണ് പൊതുവേ ഈ ഗ്രാമങ്ങളിലെ കളികള് കായികപരമായി ഒരുപാട് സ്ട്രെങ്ത് ആവശ്യമുള്ളതാണ് കായികാധ്വാനം ആവശ്യമുള്ള കളികളായിരിക്കും ഈ പറയുന്ന കബഡിയോ ആയാലും ഫുട്ബോളായാലും അതുപോലുള്ളേ പല കാൽപന്തുകളികളും പല കളികളും ഉണ്ട് ഈവൻ വള്ളംകളി അതായത് തുഴച്ചിലുണ്ടല്ലോ നമ്മുടെ കയാക്കിംഗ് പോലുള്ള കയാക്കിങ്ങെല്ലാം ഈ ഗ്രാമങ്ങളിലെ ആൾക്കാര് ഒരു സമയത്ത് കളിച്ച കളി പിന്നെ രൂപാന്തരപ്പെട്ടതാണ് അതുപോലെ എല്ലാ കളികളും ഇവിടെ അധ്വാനത്തിൻ്റെ റിസൾട്ടാണ് കാരണം ഒരുപാട് അധ്വാനിക്കുന്ന ആൾക്കാരായിരിക്കും ഗ്രാമങ്ങളിലുണ്ടാവുന്നത് ഇന്ന് കാണുന്ന മെഷിനറീസും ഗ്രാമങ്ങളില് വളരെ വൈകിയാണ് എത്തിയത് ഇന്നിപ്പോള് ഗ്രാമങ്ങളിലൊക്കെ മെഷിനറീസും കാര്യങ്ങളും എത്തിയിട്ടുണ്ടാവും പക്ഷേ ഒരു ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പേ വരെ ഇതൊന്നും എത്താത്തതാണ് അന്ന് ഗ്രാമങ്ങള് ആ സമയത്ത് അവർക്ക് എങ്ങനെ എൻ്റർടെയ്ന് ചെയ്യാം അതെങ്ങനെ സന്തോഷിക്കാമെന്നുള്ളത് അവർ ഈ കളി കഴിഞ്ഞശേഷം സോറി ഈ നമ്മുടെ അധ്വാനിച്ച ശേഷം നമ്മുടെ പണിയെടുത്ത ശേഷം തിരിച്ചു വൈകുന്നേരങ്ങളില് കളികളാണ് അവർക്ക് സന്തോഷം കൊടുത്തിട്ടുള്ളത് അല്ലെങ്കില് അവർക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളത് അവർക്ക് തീർച്ചയായിട്ടും ഇന്ന് ഗ്രാമങ്ങളില് കളികളെല്ലാം അന്യം നിന്നു പോവുന്നുണ്ട് എന്നു തോന്നുന്നു എനിക്ക് അതായത് ഒരുകാലത്ത് ഉണ്ടായ സാധനങ്ങളൊന്നും ഇപ്പോള് ഇല്ല ഗ്രാമങ്ങളൊക്കെ പട്ടണങ്ങളായി മാറുന്നുണ്ട് അതിൻ്റെ ഫലമായിരിക്കാം പണ്ടത്തെപ്പോലെ ആൾക്കാർക്ക് കളിക്കാൻ നേരമില്ല എല്ലാവരും ഈ മൊബൈലിൻ്റെയും ഗെയിമിൻ്റെയും പിന്നാലെ ഈ മൊബൈൽ ഗെയിമിൻ്റെയും ടിവിയുടെയും പിന്നാലെ ആയി ആയി അതുകൊണ്ട് ഗ്രാമങ്ങളിലെ കളികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എൻ്റെ കാലഘട്ടത്തില് ചെറുപ്പ കാലഘട്ട എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളില് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പേ വരെ ഈ ഗ്രാമങ്ങളായിലെ കളികളാണ് അവിടുത്തെ ആൾക്കാരുടെ ആ ഗ്രാമങ്ങളിലുള്ള ആൾക്കാരുടെ സന്തോഷം അത് രൂപപ്പെടുത്തിയ സാധനം കാരണം ഇപ്പോള് നമുക്ക് ഇരുന്നിടത്തുനിന്ന് ഒരാള് മതി ഇന്ന് നമ്മള് കളിക്കാനോ സന്തോഷിക്കാനോ ഇപ്പോള് ഒരാളോ നമ്മുടെ കയ്യില് ഒരു മൊബൈലോ മാത്രം മതി അന്ന് അങ്ങനെയല്ല വൈകുന്നേരങ്ങളില് പണിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളായാലും പണിയെടുക്കാൻ പോകുന്ന ആൾക്കാരായാലും എല്ലാം വൈകുന്നേരങ്ങളിൽ വന്ന് ഒരു ക്ലബ്ബിൻ്റെയോ വായനശാലയുടെയോ അല്ലെങ്കില് ഒരു ബസ്റ്റാന്റിൻ്റെയോ അല്ലെങ്കില് എവിടെയെങ്കിലും ഒത്തുകൂടി വൈകുന്നേരങ്ങളിലെ ക്രിക്കറ്റായാലും ഫുട്ബോളായാലും കബഡിയായാലും എന്തെങ്കിലും കളികള് എല്ലാത് അത് നോക്കാനും ഒരുപാട് ആൾക്കാര് ഇന്നിപ്പോള് കളിക്കാൻ മാത്രമേയുള്ളൂ അന്ന് നോക്കാനും ഒരുപാട് ആൾക്കാര് ഈ വയസ്സായവരൊക്കെ നോക്കാൻ വരും നോക്കി കളി അപ്പോള് ഇതൊക്കെ അവരെ മാനസികമായി ഭയങ്കര ഉല്ലാസം ചെയ്യും എനർജെറ്റിക്കാക്കും സത്യം പറഞ്ഞാല് കാരണം അതുവരെ കഷ്ടപ്പെട്ട കാരണം വളരെയധികം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അതുവരെ വരുന്നത് ഈ ഭൂമി നിലം കിളച്ചിട്ടും ആ കിളച്ചുമറിച്ച് ഉഴുതും കൃഷിയെ സ്വാഭാവികമായിട്ടും കൃഷിയായിരിക്കും ഈ ഗ്രാമങ്ങളിൽ ഉണ്ടാവുന്നത് ഈ കൃഷിപ്പണിയൊക്കെയെടുത്ത് അധ്വാനിച്ച് ക്ഷീണിച്ചു വരുന്നവര് ഇവര് സന്തോഷിക്കുന്നതെന്നുവെച്ചാല് അവസാനം ഈ വന്ന് കളി കണ്ടു കുറേ അഭിപ്രായം പറഞ്ഞു ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും അതുകൊണ്ടു തന്നെ വളരെ അവരുടെ ജീവിതത്തില് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഗ്രാമങ്ങളിലെ കളികള് പക്ഷെ ഇന്ന് അത് അന്യം നിന്നു പോയി എന്നു നമുക്കു പറയാതെ വയ്യ കാരണം ഇന്ന് അത്ര കളികളൊന്നും ഇപ്പോള് ഗ്രാമങ്ങളിൽ ഇല്ല എന്നു തന്നെ പറയാം നമുക്ക് ടര്ഫുകളും അല്ലെങ്കിൽ മൊബൈലുകളും ടിവിയിലുമൊക്കെ നമ്മള് ഒതുങ്ങിപ്പോയി പക്ഷെ അന്ന് അങ്ങനെയായിരുന്നില്ല ആ ഒരു കാലഘട്ടം അപ്പോള് തീർച്ചയായിട്ടും ഗ്രാമങ്ങളില് കളിക്ക് നല്ലവണ്ണം പ്രാധാന്യമുണ്ട് അവര് മാനസികമായ സന്തോഷത്തിന് അതായത് കായികപരമായി അവര് അധ്വാനിച്ച് ക്ഷീണം തീർക്കുന്നത് മാനസികമായി കളി കണ്ട് അവിടെ ഇരുന്ന് അവർ സംസാരിച്ച് കാര്യങ്ങള് പറഞ്ഞ് വലിയവരായാലും ചെറിയവരായാലും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചു പോകുമ്പോഴായിരുന്നു അപ്പോള് അതുകൊണ്ട് തീർച്ചയായിട്ടും മാനസികമായ സന്തോഷം ഉല്ലാസം എല്ലാം ഈ കളികളോട് ഗ്രാമം പ്രദേശത്തുള്ളവർക്കു കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഗ്രാമങ്ങളേ ഇല്ലാത്തൊരു കാലഘട്ടമാണിത് പിന്നെ ഗ്രാമങ്ങളിലെ കളികളെ കുറിച്ച് നമ്മള് പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും തീർച്ചയായിട്ടും ഈ കളികള് ഗ്രാമപ്രേദശത്തുള്ളവർക്ക് വളരെയധികം സന്തോഷമായിരുന്നു അല്ലെങ്കില് അവർക്ക് അവര് മാനസികമായ പിരിമുറുക്കം ഇല്ലാതാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു ഈ കളികള്